ഞാൻ ഡെൽഹി എന്നെ വിവാഹം കഴിച്ച് ഡെല്ലിയിലാണ് ആദ്യമായിട്ട് ഞാൻ പോകുന്നത് അവിടെ ഞാൻ എനിക്കെപ്പോഴും ഭയങ്കര തലവേദനയായിരുന്നു ഞാൻ അവിടെ ധ്യാനത്തിൽ പങ്കെടുത്തു ആ ധ്യാനത്തിലൂടെ അച്ഛൻ അവിടെ സ്റ്റേജീന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു ഒത്തിരിപേരുടെ സൗഖ്യം ഈശോ കൊടുക്കുന്നുണ്ടെന്ന് അപ്പം ഞാൻ പ്രാർത്ഥിച്ചതൊന്നായിരുന്നു എൻ്റെ തലവേദന എടുത്ത് മാറ്റണമേ ഈശോയെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അതിലൂടെ എനിക്ക് ഈശോ സ്പർശിക്കുകയും എനിക്ക് എന്നുമുണ്ടായിരുന്ന തലവേദന മാറുകയും ചെയ്തു വീണ്ടും ഞാനടുത്ത ധ്യാനത്തിൽ പങ്കെടുത്തു എനിക്ക് തലവേദന മാത്രമേ ഉള്ളു ഇപ്പോൾ ഒരു പനി വരാനായിട്ട് ഞാനീശോയോട് പ്രാത്ഥിക്കുകയായിരുന്നു കാരണം എനിക്കൊരിക്കലും പനിവരാറില്ല ഞാനങ്ങനെ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തൊരു സിസ്റ്ററ് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേം ആ സമയത്തിൽ എനിക്ക് എൻ്റെ ശരീരത്തിന്ന് എന്തോ വിട്ട് പോകുന്നതായിട്ട് അനുഭവപ്പെടുകയും അന്ന് വൈകീട്ട് ഞാൻ രാത്രി വന്നപ്പോൾ എനിക്ക് ഭയങ്കര പനി അനുഭവപ്പെടുകയുണ്ടായി ഞാൻ അങ്ങനെ പനി പനിക്ക് വേണ്ടി മരുന്ന് വാങ്ങിച്ചു ആ മരുന്ന് വാങ്ങിച്ച് പനിക്ക് കുറവില്ലായിരുന്നു പക്ഷേ എങ്കിലും ഈ ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നത് നിൻ്റെ പ നിനക്ക് പനി ടൈഫോയ്ഡാണെന്ന് എൻ്റെ ഈശോ വെളിപ്പെടുത്തി അതിലൂടെ ഞാൻ ബ്ലഡ് ടെസ്റ്റ ചെയ്തപ്പോൾ എനിക്ക് ടൈഫോയ്ഡായിരുന്നു വീണ്ടുമെനിക്ക് ഈശോ വീണ്ടുമെനിക്ക് വെളിപ്പെടുത്തി നിനക്ക് മഞ്ഞപ്പിത്തം ഉണ്ടെന്ന് ഈശോ വെളിപ്പെടുത്തി അതും ഞാൻ ടെസ്റ്റ ചെയ്തപ്പോൾ അതും എനിക്കുണ്ടായിരുന്നു രണ്ടാമതും ഞാൻ നാട്ടിൽ ഡെല്ലി വെച്ചായിരുന്നു ഈ അനുഭവങ്ങളെല്ലാം എനിക്കുണ്ടായത് പിന്നെ ഞാൻ വീണ്ടും നാട്ടിൽ വന്നു ധ്യാനത്തിൽ പങ്കെടുത്തു ബിജോ അച്ഛനായിരുന്നു ധ്യാനഗുരു ആ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് എൻ്റെ കമ്മലും മാലയും എല്ലാം നഷ്ട്ടം കമ്മൽ നഷ്ട്ടപ്പെട്ടു അപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പം മാതാവിൻ്റെ ലൂടെ എനിക്ക് ആ കമ്മലെനിക്ക് മാതാവ് തന്നെ എൻ്റെ ശരീരത്തിൽ തോണ്ടിക്കൊണ്ട് തന്നെ ഈ പോയ കമ്മലെനിക്ക് തിരിച്ച് തരുകയും അവിടെനിക്ക് സാക്ഷ്യം പറയാനും ഈശോ എന്നെ സഹായിച്ചു പിന്നെ ഒത്തിരി ഏറെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരിലൂടെ തന്നെ എന്നിലൂടെ അവർ അവർ പറഞ്ഞ നിങ്ങളോട് പറഞ്ഞതിന് ശേഷം ഈ രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടുകേം അവരത് സാക്ഷ്യം പറയാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റോയ് അച്ഛൻ വീണ്ടും നമ്മുടെ നിത്യ സമയം മാതാ റോയ് അച്ഛനിലൂടെ അവിടേം ധ്യാനത്തിൽ പങ്കെടുക്കേം ഒത്തിരിയേറെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ ഈശോ സഹായിക്കേം അവരിലൂടെ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കേം ചെയ്തിട്ടുണ്ട് ഈശോ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തത് ചെയ്തിട്ടുണ്ട് വരാനുള്ള കാര്യങ്ങളെല്ലാം ഈശോ വെളിപ്പെടുത്തി തരാറുണ്ട് അതുപോലെ വീണ്ടും ട്രോണി അച്ഛനിലൂടെ വീണ്ടും അവിടെ ധ്യാനത്തിൽ പങ്കെടുക്കാനും ഈശോ വീണ്ടും എനിക്ക് മറ്റുള്ള വ്യക്തികൾക്ക് ക്യാൻസർ അങ്ങനെ മറ്റുള്ള മാരകമായ രോഗമുള്ള വ്യക്തികളെ ഈശോ എനിക്ക് വെളിപ്പെടുത്തി തരികേം ഒത്തിരിയേറെ മക്കളിലൂടെ ഈശോ എനിക്ക് എന്നിലൂടെ പ്രവർത്തിക്കേം ചെയ്തു ഇതുപോലെ ധ്യാനത്തിനെല്ലാം പങ്കെടുക്കുവാനും ഈശോ മഹത്വപ്പെടുത്തുവാനും ദൈവം എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നും എൻ്റെ ജീവിതത്തിൽ ഈശോ ഒത്തിരിയേറെ അത്ഭുതങ്ങളാണ് ചെയ്യുന്നത് അവിടുന്ന് ചൊരിയുന്ന വലിയ കൃപയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാനും മരിച്ച ഞാൻ മരിച്ച ഞാനായിരുന്നു ടൈഫോയ്ഡ് മഞ്ഞ മഞ്ഞപ്പിത്തത്തിലൂടെ ഈശോ എനിക്ക് വെളിപ്പെടുത്തിതന്നു ഈശോ എന്നെ നേരിട്ടിറങ്ങി വന്നെൻ്റെ എനിക്ക് ജീവൻ തന്ന മകളാണ് ഞാൻ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈശോടെ ജീവനാണെൻ്റെ ശരീരത്തിലൂടെ ഓടുന്നത് നമ്മുടെ ബൈബിളിൽ പറഞ്ഞേൽക്കുന്നത് മരിച്ച ബാലികയെ ഈശോ ഉയർപ്പിച്ചത് പോലെ എന്നെയും ഈശോ ഉയർപ്പിക്കുകയും ഞാൻ വെറും കഞ്ഞീം വെള്ളവും ബന്നും കഴിച്ചോണ്ടിരുന്ന എനിക്ക് ഈശോ എനിക്ക് അതിലൂടെ വന്ന് സൗഖ്യം തരികേം ഞാൻ ഞാൻ കിടന്ന എന്നെ ഈശോൻ്റെ കാലിൽ എന്നെ അടിക്കുകയും ഞാൻ ചാടി എഴുനേൽക്കുകയും എൻ്റെ മുറി മുഴുവൻ പ്രകാശത്താൽ നിറയുകയും ചെയ്തു ഞാൻ ചാടി എഴുന്നേറ്റ ശേഷം ഞാൻ ഈ ബന്നും കഞ്ഞി കുടിച്ചോണ്ടിരുന്ന എനിക്ക് ഈശോ സൗഖ്യം തന്നതിലൂടെ ഞാൻ ചാടി എഴുന്നേറ്റ് സ്വന്തമായിട്ട് ഗോതമ്പ് മാവ് കുഴക്കേം ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കേം ചെയ്തു ഇത്തിരി വ ഒരു പത്ത് ഇരുപത് വർഷമായി എനിക്ക് നെഞ്ച് വേദന വന്നായിരുന്നു എൻ്റെ മരണം ഈശോ എനിക്ക് വീണ്ടും ജീവൻ തന്നു എല്ലാത്തിനും ഈശോയോട് നന്ദി പറയുന്നു